ഇപ്പം ഗ്രാമപ്രദേശത്ത് നമ്മൾ ഇപ്പം എന്തെങ്കിലും ഇപ്പം ഒര് ടൂർണമെൻറ്റൊ കാര്യങ്ങളോ ഒക്കെ വെച്ചുകഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് ആൾകാരുമായിട്ട് കുറേ കോൺടാക്ട് കാര്യങ്ങൾ ഒക്കെ കിട്ടും അപ്പോൾ നല്ല രീതിയിൽ സമൂഹത്തിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ചാൻസ് കൂടിയാണ് ഈ എന്താണ് പറയുക ഇപ്പോൾ ടൂർണമെൻറ്റ് ഓരോ ഗെയിംസ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ വയ്ക്കുമ്പോൾ ഓരോ പലതരം കളികളൊക്കെ ഉണ്ട് ഇപ്പം അവർക്ക് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഒക്കെ നടത്തുക അപ്പോൾ അതിന് നമ്മൾ കുറേ ആൾക്കാരെ വിളിച്ച് അവരെ അവർ സമ്മാനവും കാര്യങ്ങളും ഇപ്പം ക്യാഷ് പ്രയിസ് കൊടുക്കുക പിന്നെ ട്രോഫി കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ഒരു എന്താണ് പറയുക എല്ലാവരുമായിട്ട് വിളിക്കാനും എല്ലാവരുമായിട്ട് കമ്പനി ആവാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് സാമൂഹിക എന്താണ് ഇപ്പം നമ്മളിപ്പം എന്തെങ്കിലും ഒരു ചാരിറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ടൂർണമെൻറ്റ് ഒക്കെ നടത്താം അപ്പോൾ ചാരിറ്റി ആ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ അവർക്ക് ചാരിറ്റിയിൽ ഓരോ ധനസഹായവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം അതൊക്കെ നല്ലൊരു രീതിയിലുള്ള ഇടപെടലായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ പല രീതിയിലുള്ള കളികളുണ്ട് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇതൊക്കെ നല്ല രീതിയിൽ നടത്തുവാണെങ്കിൽ നമുക്ക് ഈ ചാരിറ്റിയിലും എല്ലാത്തിലും ഫണ്ട് നൽകാനും സാധിക്കുന്നതാണ്